നമസ്കാരം എന്നെ മനസ്സിലായോ നിനക്ക് എന്താടാ പറ അതെ എന്തു പരിപാടിയാണെടാ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നെ ബാദ്ബദറിൻ്റെ ഒരു അല്ലെ ഇതുണ്ടല്ലേ ഓ ഓക്കെ എനിക്കോർമ്മയുണ്ട് എനിക്കോർമ്മയുണ്ട് ആ അതിൽ എടാ അതിൽ പ്രധാനമായിട്ട് നമുക്കൊന്നും ഇല്ല നമ്മൾ ഈ ഇതുവരെ നമ്മൾ ഇതുവരെ അഭ്യസിച്ചിട്ടുള്ള അല്ലെങ്കിൽ സാധകം ചെയ്തിട്ടുള്ള വർക്ക് അതെല്ലാം പൊടി തട്ടി എടുക്കാം നമുക്ക് മെയിനായിട്ടൊരു ഒരു എന്താ പറയുക ഡിബേറ്റ് പോലെത്തൊരു സംഭവമാണ് ആ അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ പാലക്കാട് ഒരു പവർ ഹൗസ് ഓഫ് കർണ്ണാട്ടിക്ക് മ്യൂസിക്ക് എന്നു പറഞ്ഞിട്ടുള്ള ഒരു ഇവൻ്റാണ് അതിൽ നമുക്ക് ഇതുവരെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ക്ലാസ്സിക്കൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ കർണ്ണാടക കർണ്ണാട്ടിക്ക് സംഗീതപരമായിട്ട് ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതിൽ എന്ത് എത്രത്തോളം നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ മികച്ചു നിൽക്കുന്നു എന്നുള്ളത് വിഷയമാണ് ഇതിന് മെയിനായിട്ട് വരുന്നത് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ അന്നൊരു ഡിബേറ്റ് കോൺവർസേഷനാണ് സംഭവം അതെ അതെ അതെ നമ്മൾ എടാ നമ്മൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്ന കാലങ്ങൾ നിനക്ക് ഓർമ്മയില്ലേ അത് നമ്മൾ ആ ആ പഠിച്ചത് കാര്യങ്ങളെല്ലാം ഒന്ന് പൊടി തട്ടിയെടുക്കണം പിന്നെ അത് അവിടെ എടുത്ത് വച്ചേക്കണം ഓ ഓക്കെ ആ ഓക്കെ എന്തായാലും വാ നമുക്ക് അതിനെക്കുറിച്ച് എന്തായാലും ഒന്ന് വിലയിരുത്തി ഒന്ന് സംസാരിച്ച് എല്ലാം ക്ലിയറ് ചെയ്തിട്ട് ആ എനിക്കെന്തായാലും ദാസേട്ടനെ കാണണം എന്നുള്ള വലിയ ആഗ്രഹം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ശരിക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ല ഓ ഓക്കെ ഓക്കെ ആ ആടാ ഫ്രീയാണ് ഫ്രീയാണ് ഈ മന്തും നെക്സ്റ്റ് ഏതാണ് ഏത് മാസത്തിലാണ് ഈ രണ്ട് മാസത്തിലും ഞാനെന്തായാലും ഫ്രീയാണ് ആ അതെ അതെ അതെ ആ പിന്നെടാ എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു ഗുരു ഉണ്ടായിരുന്നു ഗുരു ഉണ്ടാരുന്നു നിലമ്പൂർ സുരേഷിനെ നിനക്കറിയാം അറിയുന്നതാണല്ലോ ആ അപ്പോൾ സാറും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് പറയണ കേട്ടത് അത് പറഞ്ഞിരുന്നു അന്ന് ആ സാറ് ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കെന്തായാലും ആ ഓക്കെ ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് ഇന്ന് ഇനി ഈ അടുത്ത ഡേറ്റിൽ നമുക്ക് വന്നിട്ട് നേരിട്ട് വന്നിട്ട് മീറ്റ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആ ശരിയെന്നാടാ പിന്നെ കാണാം ബൈ